കൃഷിയെക്കുറിച്ചും മുഴും അതിന്റെ പ്രവര്ത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ ആളുകള് എന്തെല്ലാം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ കൃഷി തീര്ച്ചയായിട്ടും കൃഷിക്കാറുണ്ടെങ്കിലേ നമ്മുടെ നിലനില്പ്പിന്റെ ഒരു ആവശ്യമാണ് കൃഷിക്കാർ കൃഷി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉദാഹരണത്തിന് നമ്മൾ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാ മേഖലകളും നികത്തപ്പെട്ട മേഖലകൾ കൃഷിയൊന്നും ഇല്ലാതെ പല കൃഷിയൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാന് പറ്റാത്ത കാര്യമാണ് കാരണം ഇപ്പം ഒരു മേഖല ഒരു പ്രദേശം മുഴുവന് നികത്തി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ വലിയ ഫ്ലാറ്റ് സമുച്ചയം പോലുള്ളത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ വരുന്ന മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവന് നഷ്ടപ്പെട്ട് പോവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് കൃഷിയെയും കര്ഷകന് കര്ഷകനും കൃഷിയും ഇല്ലെങ്കില്പ്പിന്നെ എന്ത് ജീവിതമാണുള്ളത് ഏ അല്ലേ നമുക്ക് മറ്റ് രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറും ഇവിടെത്തന്നെ ഉല്പ്പാദിപ്പിക്കുന്ന നെല്ല് ആണെങ്കിലും മറ്റ് പയറ് വര്ഗങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ പിന്നെ മുട്ട ഉല്പ്പാദനത്തിലാണെങ്കിലും ഇതെല്ലാം നമ്മൾ ആശ്രയിച്ച് ഒന്ന് ഒന്നിനെ ആശ്രയിച്ച് കൊണ്ട് മുന്നോട്ട് പോയാല് മാത്രമേ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് നീങ്ങൂ ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാന് സാധിക്കുകയുള്ളൂ കൃഷിയിലേക്ക് കൂടുതല് ചെറുപ്പക്കാർ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം അത് മനസിലാക്കി അവർ വേണ്ട പദ്ധതികൾ ആവിഷ്ക്കരിച്ച് കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഗവണ്മെന്റ് തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനാ തലത്തിലാണെങ്കിലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ച് അത് കര്ഷകരിലേക്ക് കൂടുതൽ കൂടുതൽ ആള്ക്കാരെ അതിലേക്ക് കൊണ്ടുവരാന് പര്യായകമായ രീതിയിലുള്ള പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ആ ക്ലാസ്കളും ചര്ച്ചകളും ഒക്കെ കൊണ്ട് വന്നാല് മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുവഴി ഒത്തിരി ചെറുപ്പക്കാർ ഈ മേഖലകളിലേക്ക് വരണം എന്നാണ് എന്റെ എന്റെ ആഗ്രഹം അതോടൊപ്പം തന്നെ വിളകളുടെ ആഗോള ഉത്പാദകരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വിളകളും ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഓരോ വിളകള്ക്കും പ്രത്യേകമായിട്ട് ഓരോ സ്റ്റേറ്റ് ആണെങ്കിലും അത് ജില് പിന്നെ ഓരോ വിളകള്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുപോവുന്ന സ്റ്റേറ്റ്കൾ ഇപ്പം ഇന്ഡ്യയില്ത്തന്നെ ആണെങ്കിലും ഉണ്ട് ഓരോ സ്ഥലത്തും ഓരോ വിളകൾ ചെയ്താല് മാത്രമേ അതിനൊരു കാര്യമായ വിളകള് ലഭിക്കുന്നവർ അത് പക്ഷെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചാബ് പോലുള്ള രാജസ്ഥാന് പോലുള്ള ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത് നെല്കൃഷിയെക്കാൾ കൂടുതൽ അവര്ക്ക് ഏറ്റവും കൂടുതൽ വിളകള് ലഭിക്കുന്നത് ഗോതമ്പാണ് എന്നാല് പാലക്കാടും കുട്ടനാടും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നെല്കൃഷിയാണ് അവിടെ ഏറ്റവും നല്ല ഒരു വിളയായിട്ട് മാറിയിരിക്കുന്നത് അതില് നിന്നുള്ള വരുമാനമാണ് കൂടുതലായിട്ട് തീര്ച്ചയായിട്ടും ഈ മേഖലകൾ ഒക്കെ ആത്മാഭിമാനം തന്നെയാണ് ഇത് കൂടുതൽ ചെറുപ്പക്കാർ ഈ മേഖലകളിലേക്ക് വളരട്ടെ അങ്ങനെ നമ്മുടെ കൃഷി കൂടുതൽ രീതിയിൽ ഉല്പ്പാദന രംഗത്തും വിപണന രംഗത്തും അതൊക്കെ വലിയ ഭംഗിയായ മാറ്റങ്ങളും ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ സാങ്കേതികവിദ്യകൾ കൂടുതൽ കൂടുതൽ സാങ്കേതികതകൾ ഉണ്ടായാല് കൃഷിയില്ലാത്ത നൂതന മാര്ഗങ്ങളിലൂടെ കൃഷി കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും